ഞാന് ബിന്ദു ജേക്കബ് എന്റെ വീട് ഒരു ഗ്രാമപ്രദേശത്തിലാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്കെപ്പോഴും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടാനായിട്ടൊരല്പ്പം ബുദ്ധിമുട്ടായിരുന്നു യാത്ര സൗകര്യം കുറവുകൾ പോയി വാങ്ങിക്കാനുള്ള സൗകര്യക്കുറവ് പിന്നെ ഞങ്ങൾക്കൊരു സൈക്കിള് അങ്ങനെ ഒന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാന് പോവാനും ബുദ്ധിമുട്ട് ഈ ഞങ്ങൾക്ക് കൊണ്ട് എത്തിക്കുന്ന എത്തിക്കാനും ആള്ക്കാര്ക്ക് ബുദ്ധിമുട്ട് ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ സ്ഥലം സ്ഥലം നിന്നിരുന്നത് അപ്പോൾ എന്റെ അപ്പച്ചനാണെങ്കിലൊരു ബിസിനസ്സെന്നോ എന്തെങ്കിലും തുടങ്ങണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഈ ആള്ക്കാരുടെ നമ്മുടെ ഏരിയയിലുള്ള ആള്ക്കാരെല്ലാം ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആള്ക്കാരാണ് അപ്പം നമുക്കെന്തെങ്കിലും ഒരു കട തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കപ്പം എന്തെങ്കിലും ഞങ്ങളൊരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മക്കതിനൊരു ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അപ്പം ഞങ്ങള് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമോയെന്ന് ഒരുപാട് അന്വേഷിച്ചു പക്ഷെ ഞങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ വീട്ടിലുള്ള സ്വര്ണ്ണവും പിന്നെ അടുത്തുള്ളവരോടൊക്കെ കടമായിട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങളതെല്ലാം കൂടെ ചേര്ത്ത് ഒരു കട തുടങ്ങി പഷേ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കതൊരു സാധനങ്ങൾ കൊണ്ടെത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആള്ക്കാര്ക്കെങ്കിലും കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങള്ക്ക് പോയി കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീടത് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാന് സാധിച്ചു കാരണം ആള്ക്കാർ തൊട്ടടുത്തുള്ള ആള്ക്കാരെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ആള്ക്കാരായിരുന്നതുകൊണ്ട് അവര്ക്ക് ഇത്ര അടുത്ത് സാധനങ്ങൾ കിട്ടാന് തുടങ്ങിയപ്പോൾ അവർ ഞങ്ങളെന്നും അതൊക്കെ വാങ്ങിക്കാന് തുടങ്ങി അപ്പം ഞങ്ങള്ക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ നടന്നു പോകും അവര്ക്ക് ഈസിയായിട്ടവരുടെ അവര്ക്ക് വേണ്ട സാധനങ്ങളും കിട്ടും അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നു അങ്ങനെ നല്ല രീതിയിൽ സ്ഥാപനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇന്നിതാണ് ഞങ്ങൾക്ക് ഈ വെള്ളം കയറുന്ന ഏരിയയൊക്കെ ആയതുകൊണ്ട് വെള്ളപ്പൊക്കം വരുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ പോയി വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ സാധങ്ങൾ അഴുക്കായി പോവുന്ന ഒരു രീതികളുണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ അഴുക്കായി പോവുന്ന രീതിയിൽ നമ്മുടെ കച്ചവടത്തെ അത് നന്നായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ ഈ പിന്നെ എല്ലാവര്ക്കും എപ്പോഴും ഉപയോഗപ്രദമായ സാധനങ്ങൾ വേണമല്ലോ നമ്മൾ കൊണ്ടുവരാൻ കടയില് കൊണ്ടു വയ്ക്കാനും അവർ ഉപയോഗിച്ചില്ലെങ്കില് നമ്മൾക്കത് നഷ്ടങ്ങളല്ലേ അതുകൊണ്ട് അങ്ങനെ അവര്ക്ക് വേണ്ട സാധനങ്ങൾ നോക്കിത്തന്നെ നമ്മൾ വാങ്ങിക്കുമായിരുന്നു എങ്കിലും നമുക്ക് കുഴപ്പം ഇല്ലാതെ നമ്മുടെ ബിസിനസ്സ് മുന്നോട്ട് കൊണ്ടുപോവാന് സാധിച്ചിട്ടുണ്ട് ആ പിന്നെ വരും ഞങ്ങൾക്കാണെങ്കിലും ഒരു ജീവിതവരുമാനമായി പിന്നെ അതുപോലെതന്നെ ആള്ക്കാര്ക്ക് സാധനങ്ങൾ കിട്ടാന് തുടങ്ങിയപ്പം അവര്ക്കും സന്തോഷമായി ഇപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാനുള്ള രീതിയിലുള്ള യാത്രാസൗകര്യങ്ങളൊക്കെ ഞങ്ങളെ വഴിയിലേക്കായിട്ടുണ്ട് ഞങ്ങളൊരു സ്കൂട്ടറ് വാങ്ങിച്ചു അപ്പം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പോയി കളക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ സാധനങ്ങൾ ഞങ്ങള്ക്ക് വണ്ടിയില് കൊണ്ടുപോയി വന്ന് എടുത്തുകൊണ്ട് പോയി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കടയില് വച്ച് സെല്ല് ചെയ്യാനുള്ളൊരു സിറ്റുവേഷന്സൊക്കെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങളൊന്നുമില്ലാഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനും ഒക്കെ ഒരു ഒരു ഒരു ഒരു കാരണമായത് അപ്പം ഞങ്ങളുടെ ലോണുകളെക്കെ ഏകദേശം തീര്ന്നു ഞങ്ങൾക്കൊരു വീട് വെക്കാന് സാധിച്ചു പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനാവിശ്യങ്ങള്ക്കാണെങ്കിലും വിവാഹ ആവിശ്യങ്ങള്ക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനുള്ളൊരു പൈസ സേവ് ചെയ്യാനുള്ളൊരു മാര്ഗ്ഗമായിട്ടത് തീർന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ജീവിച്ചു പോകുന്നു ഇതൊക്കെയാണ് പിന്നെ ഞാന് പറഞ്ഞതുപോലെതന്നെ നമ്മൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് വച്ച സാധനങ്ങൾ തന്നെ ചിലവാകാതെ വന്ന സമയങ്ങളുമുണ്ട് കാരണം ആള്ക്കാര്ക്ക് ഇതിന് വിലക്കൂടുതലായിരിക്കും നമ്മൾ കൊണ്ട് കൊണ്ടുവന്ന ഈ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുമ്പം വില കൂടുതലായിരിക്കുമെന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എങ്കില്ത്തന്നെയും ഈ പുറത്തു പോയി ഒരു മാസത്തേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആള്ക്കാരെക്കൊണ്ട് നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിപ്പിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി ഞങ്ങള്ക്ക് അപ്പം ഞങ്ങൾക്ക് കുറേ നഷ്ടങ്ങളുണ്ടായാൽ ഞങ്ങളാദ്യം സെൽ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ എങ്കിലും കുഴപ്പം ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേര്ന്നിട്ടുണ്ട് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ ബിസിനസ്സ് ഇന്നും നിലനിന്നുകൊണ്ട് പോവുകയാണ്